നാളെ അല്ല അത്യാവശ്യക്കാർക്ക് വീട്ടിൽ ചെല്ലും അത്യാവശ്യം പറയുവാണെങ്കിൽ അത് കേരളത്തിലെ മെയിൻ മെയിന് എന്ന് പറയുന്നത് സദ്യ അല്ലേ സദ്യ കേരള സദ്യ അതിൻ്റെ എല്ലാ വിഭവം ആ അതിന് എന്താ സദ്യയ്ക്ക് അവിയൽ സാമ്പാറ് തോരൻ മെഴുക്ക്പിരട്ടി ഇഞ്ചിക്കറി പച്ചടി കിച്ചടി പിന്നെ അച്ചാറ് അങ്ങനെ ഓ അപ്പം പിന്നെ അങ്ങനെയെല്ലാം അവിയലെന്ന് വെച്ചാൽ പച്ചക്കറി എല്ലാം കൂടെ അതിൻ്റെകത്ത് ഇച്ചിരി തേങ്ങായും വെളിച്ചെണ്ണയും ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അവിയൽ അവിയൽ അധികം വെളിച്ചെണ്ണ ഇല്ലാതെയും അധികം തേങ്ങ ഇല്ലാതെയും ചെയ്യാൻ പറ്റും ആ ഓക്കെ ആ അതേ അതേ പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ ആ നാൽപ്പത് അൻപത് ഒക്കെ പോകും

ഓക്കെ ഓക്കെ